ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ സ്കൂളിൽ നിന്നുമാണ് ചിത്ര രചന പ്രാക്ടീസ് ചെയ്തത് എനിക്ക് ചിത്രരചന ഒരുപാട് ഇഷ്ടമാണ് ചിത്രരചന ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു കോളേജിൽ പഠിക്കുമ്പോഴും ഒരുപാട് ആർട്സിൻ്റെയും സ്പോർട്സിൻ്റെയൊക്കെ സമയത്ത് പോസ്റ്ററുകളും മറ്റു ചിത്ര ഡിസൈനുകളുമെല്ലാം ഞാൻ തയ്യാറാക്കുമായിരുന്നു എന്നെ സംബന്ധിച്ചെടുത്തോളം ഒരുപാട് വരയ്ക്കാൻ കഴിവുള്ള ആളുകൾ എൻജിനിയറിംഗ് ഡ്രാഫ്ട്മാൻ സിവിൽ പോലുള്ള ചിത്രകാരന്മാരായിട്ടുള്ള ജോലികളാണ് തിരഞ്ഞെടുക്കേണ്ടത് കാരണം അതിലൂടെ അവർക്ക് ആർക്കിടെക്ചർ പോലുള്ള ഉന്നത ജോലിയിലേക്കെത്തിപ്പെടാനും ചിത്രരചനയിൽ തന്നെ കഴിവുള്ളതിനാലും അവർ അതിൽ തന്നെ നല്ല വിജയം കണ്ടെത്തുന്നു അതോടുകൂടി തന്നെ നമ്മൾ നമ്മുടെ കഴിവുകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും കൂടുതലായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ജോലി ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്നും സന്തോഷം കണ്ടെത്തുന്നു എന്നെ സംബന്ധിച്ചെടത്തോളം കേരളത്തിൽ ഇന്ന് ഒരുപാട് ചിത്രരചന പഠിപ്പിക്കുന്ന കോളേജുകളും സ്കൂളുകളും ഉണ്ട് അവിടെയെല്ലാം പോയി നമ്മൾക്ക് കിട്ടിയ നമ്മുടെ കഴിവ് നല്ലപോലെ ഉപയോഗപ്പെടുത്തണം